ഹലോ ഞാൻ ഒരു ബിരിയാണിക്ക് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഞാന് തമിഴ്നാട്ടിലേക്കു യാത്ര ചെയ്യാണ് അപ്പം അവിടെ ചെല്ലുമ്പം എനിക്കു കഴിക്കാന് വേണ്ടിയിട്ടാണ് ഞാന് ഫുഡ് ഓഡര് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിവിടുന്നു ഫുഡ് കൊണ്ടുപോയാലെനിക്ക് ചൂട് പോകാതെ അവിടെ ചെന്നു കഴിക്കാന് തക്കവണ്ണം ആ ഫുഡ് നിങ്ങൾ അതു ചൂട് നഷ്ടപ്പെടാതെ ഉള്ള ഒരു കണ്ടേയ്നര്നകത്തൊ അല്ലെന്നൊരി പാക്കേജിനകത്തൊ അങ്ങനെയാക്കി തരാനായിട്ട് നിങ്ങൾക്കു സാധിക്കുമോ അല്ലെന്നരി ഇവിടുന്നിത്രയും നേരം യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോഴത്തേനത് തണുത്ത് പോയാല് പിന്നതു കഴിക്കാന് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ചൂടു നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടത്തക്കവണ്ണം നിങ്ങളതൊന്ന് സജ്ജീകരിച്ചു തരണം അതിനെന്തെങ്കിലും അഡീഷ്ണലായിട്ട് പൈസ ആകുന്നുണ്ടെന്നേൽ അതു ഞാന് ചെയ്യാന് തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി ഒരു സൗകര്യം ചെയ്തു തരണം